കേരളത്തിന്റെ മാതൃഭാഷയാണ് മലയാളം എന്നാൽ മലയാളഭാഷ സംസാരിക്കാത്ത ഒരു മലയാളിയും ഇല്ല എന്നാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാര്ത്തപ്പോള് മലയാള ഭാഷ മറന്നുപോയ ഒരുപാട് മലയാളികൾ നമ്മളുടെ ചുറ്റുപാടിലുമുണ്ട് അതുകൊണ്ടു തന്നെയാണ് മലയാള ഭാഷയെ മറ്റു ഭാഷകൾ സ്വാധീനിച്ചതും നമ്മുടെ മലയാളത്തിന് മലയാള ഭാഷയ്ക്ക് നാം വേണ്ടത്ര അംഗീകാരങ്ങള് ഇപ്പോഴാണ് നൽകിപ്പോരുന്നത് ഇപ്പോൾ നമ്മളുടെ നിയമ ഭാഷ എല്ലാം മലയാളത്തിലാണ് അതുപോലെ തന്നെ മറ്റ് ഭാഷകളിൽ നിന്നും വ്യത്യസ്തമാണ് മലയാളം സംസാരിക്കുന്നതും എഴുതാനും ഒക്കെയും വളരെ വ്യത്യസ്തമാണ് ഇത് മറ്റു ഭാഷക്കാർക്ക് ഇത് പഠിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് മറ്റ് ഭാഷകളെ സ്വാധീനിച്ചതും അതുകൊണ്ടാണ് ഇതില് വാക്കുകളുടെ ഉച്ചാരണം ഒക്കെ വളരെ പ്രയാസമുള്ള രീതിയിലാണ് മറ്റു ഭാഷക്കാർക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ മലയാള ഭാഷ വളരെ മഹത്താണ് നമ്മുടെ സംസ്കാരം വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ഈ ഭാഷ കൊണ്ട് സംസാരിക്കുന്നത് മൂലം ആ നമുക്ക് നമ്മളുടെ മറ്റ് ഭാഷകളേക്കാൾ ഭാഷ മറ്റു നമുക്ക് സംസാരിക്കാൻ എളുപ്പം ആക്കി തരുന്ന ഒന്നാണ് അതായത് ആയാസമില്ലാതെ സംസാരിക്കാൻ പറ്റും മറ്റു ഭാഷകളെയൊക്കെ നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അത് സംസാരിക്കാനും ഒക്കെയുള്ള ആ കഴിവ് കിട്ടിയത് നമ്മളുടെ ഈ ഭാഷയുടെ വളരെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് മലയാള ഭാഷ നമുക്ക് ഏറ്റവും മഹത്തായതും അത് വളരെ സംസ്കാരങ്ങളെ വിളിച്ച് അറിയിക്കുന്ന ഒന്ന് ആണ്